മൃഗങ്ങളെ വളര്ത്തുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ കോഴി പോത്ത് ആട് പശു ഒക്കെ നല്ല വരുമാനമുള്ള ഒരു ഇതാണ് കൃഷിയാണ് അതിൽ ഒരേതരത്തിലുള്ള മൃഗങ്ങളെ വളർത്തുന്നതാണ് കൂടുതൽ സൗകര്യം കാരണം പല മൃഗങ്ങളും പല രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളും പരിപാലനം പരിപാലനം ഇതും പരിപാലിക്കുന്നതും വ്യത്യസ്തമാണ് അതുകൊണ്ട് ഒരേ രീതിയിലുള്ള മൃഗങ്ങളെ വളര്ത്തുന്നതാണ് ഏറ്റവും നല്ലത് അതിൽ പശുക്കള് ആണെങ്കിൽ അത് വരുമാനം മാർഗ്ഗമായി പാല് കാരണം ഒരു പ്രസവത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾ അതെല്ലാം നമുക്ക് ഒരു വരുമാനമാർഗ്ഗം തന്നെയാണ് അതു പോലെതന്നെ അ്രുടെ ഭക്ഷണക്രമങ്ങളും കാര്യങ്ങളും എല്ലാം ഞമ്മക്ക് ഒരേ രീതിയിലുള്ള മൃഗങ്ങൾ ആകുമ്പോൾ കൂടുതൽ സൗകര്യം ആണ് പല രീതിയിലുള്ള മൃഗങ്ങൾ ആകുമ്പോൾ പല രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളുമാണ് അവർക്ക് നൽകേണ്ടത് കോഴികളെ വളർത്തുകയാണെന്ന് വെച്ചെങ്കിൽ അവരുടെ മുട്ട ബിസിനസ് അത് ഒരു വരുമാന മാർഗ്ഗമാണ് പശുക്കളാണെങ്കിൽ അത് പാല് അതും ഒരു വരുമാനമാർഗ്ഗമാണ് പിന്നെ പോത്തുക്കുട്ടികളെ വളര്ത്തി കഴിഞ്ഞാൽ വളർത്തി വലുതായാൽ അത് വിൽപ്പനയ്ക്കായി കൊടുക്കാം